പ്രമേഹം ഡയബറ്റീസ് എന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതിന് അനുസരിച്ച് രക്തത്തിലെ വേരിയേഷൻ കൊണ്ട് ഉണ്ടാവുന്ന അസുഖത്തെയാണ് ഡയബറ്റിസ് അഥവാ പ്രമേഹം എന്ന് പറയുന്നത് ഇത് ഗ്രാമപ്രദേശങ്ങളിൽ ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇതുവരെ ആയി ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും കണ്ട് പിടിക്കാത്തത് കൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റിട്ട് എനിക്ക് വലിയ ധാരണ ഇല്ലാത്തതു കൊണ്ടും ഇല്ലാത്തത്കൊണ്ടും നമ്മൾ നമ്മുടെ കുടുംബത്തിൽ വ മറ്റാർക്കും ഡയബറ്റിസിൻ്റെ ഒരു അസുഖം ഇല്ലാത്തത് കൊണ്ടും ഇല്ലെ ഒരു ചെറിയ തോതിൽ ഉള്ളവർ ടാബ്ലെറ്റ്സ് എടുത്ത് അതിനെ നിയന്ത്രിച്ചു വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് നാട്ടുവൈദ്യത്തെക്കുറിച്ച് അധികം അറിയാത്തത് കൊണ്ടും ഫുഡിൽ ഉള്ള മാറ്റങ്ങളാണ് കൂടുതലായിട്ടും ഡയബറ്റീസിന് വരുത്തീട്ടുള്ളത് ഇപ്പോൾ എൻ്റെ അച്ഛന് ഡയബറ്റിസ് ഒരു പേഷ്യൻറ്റാണ് അദ്ദേഹം ഇരുന്നൂറ്റി അൻപത് ഗ്രാ എം ജി ഗുളിക ടാബ്ലെറ്റ്സ് എടുക്കുന്നുണ്ട് ദിവസവും ഒ ഒന്ന് വീതം കഴിക്കുന്നുണ്ട് അത് രാത്രിയാണ് കഴിക്കുന്നത് കൂടുതലും ആഹാരത്തിൽ ഉള്ള മാറ്റങ്ങളാണ് വരുത്തീട്ടുള്ളത് ഷുഗർ ഷുഗർ കഴിക്കാറില്ല മധുരപലഹാരങ്ങൾ തീരെയും ഒഴിവാക്കിയിട്ടുണ്ട് പഞ്ചസാര സിറപ്പിലിട്ട് വെച്ചത് ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസും മൊത്തം പാടെ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പം കഴിക്കുന്നത് കൂടുതലായിട്ടും പച്ചക്കറികൾ ബീൻസ് മത്സ്യം കൊഴുപ്പടങ്ങിയ ഇലക്കറികൾ ബദാംമ് നിലക്കടല ഓട്സ് പിന്നെ പിന്നെ സിട്രിക്കാസിഡ് പാവയ്ക്ക എന്നിവയാണ് കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നാൾ നാ ഇത് കൂടുതലായിട്ടും പ്രമേഹം നാന്നൂറ് മുകളിൽ പോയാലാണ് പ്രമേഹം സ്ഥിരികരിക്കുന്നത് കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലായാലും ഇവർക്ക് ഡെയ്ഞ്ചർ സി ഡെയ്ഞ്ചർ അവസ്ഥയാണ് പ്രമേഹരോഗികൾക്ക് കൂടുതലായിട്ട് കണ്ട് വരുന്നത് അതുകൊണ്ട്തന്നെ പഴങ്ങൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പഴങ്ങൾ ഏതൊക്കെ കഴിക്കാമെന്നും ഏതൊക്കെ കഴിച്ച് കൂടാ എന്നും ഒരു ലിസ്റ്റ് ഡോക്ടറ് തന്നിട്ടുണ്ടായിരുന്നു കലോറി കുറവുള്ള പഴങ്ങൾ കഴിക്കാമെന്നാണ് ഡോക്ടർ ഞങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൽ കൂടുതലായിട്ടും വരുന്നത് ആപ്പിൾ സബർജില്ലി പപ്പായ പേരക്ക അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം ഇതൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛന് വളരെ ഇഷ്ടമാണ് ചക്ക വളരെ ഇഷ്ടമായത് കൊണ്ടും ചക്കയും മാങ്ങയും സീസൺ ആയതുകൊണ്ട് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടും ഡയബറ്റീസ് ഉള്ളത് കൊണ്ട് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റാറില്ല അപ്പോൾ ഡോക്ടർ പ്രിസ് പ്രിസ്ക്കൈബ് ചെയ്തതെന്ന് വെച്ചാൽ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴവും ചക്കയും മാങ്ങയുവൊക്കെ കഴിക്കാം ലൈറ്റ് മധുരം ആയിട്ടുള്ള പഴ് പഴുപ്പ് കുറവുള്ള ഏത് ഫ്രൂട്ട്സും കഴിക്കാമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്ന പഴങ്ങളാ ആണ് മുട്ട ഇതൊക്കെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന് നിയന്ത്രിച്ചു വരുന്നു എന്നാണ് ഡോക്ടർമാർ ഡിസൈഡ് ചെയ്യുന്നത് പിന്നെ അധികം ബ്ലഡിൽ ഗ്ളൂക്കോസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് പ്രമേഹം കൂടുതലായിട്ടും എല്ലാ എല്ലാ മനുഷ്യരിലും കാണുന്നത് അതുപോലെതന്നെ പഞ്ചസാര തീരെ ഒഴിവാക്കിയാൽ നമുക്ക് പ്രമേഹത്തെ വളരെ വളരെയധികം തടയാൻ പറ്റുന്ന ഒരു രോഗമാണ് പ്രമേഹം പഞ്ചസാരയുടെ അളവ് കൂടുതലായിട്ട് ബോഡിയിൽ വരുമ്പോഴാണ് അതായത് ബ്ലഡിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായി കാണപ്പെടുമ്പോഴാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് എന്ന രോഗത്തിലേക്ക് നമ്മൾ വഴുതി വീഴുന്നത് അധികം ഇലക്കറികളാണ് ഡയബറ്റിസ് പേഷ്യൻസ് കഴിച്ച് കഴിക്കുന്നത് പപ്പായ ജ്യൂസ് സിട്രിക്കാസിഡ് പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതും ഇവർ നല്ലതായിരിക്കും ഡയബറ്റിസ് പേഷ്യൻറ്റ്സ് ജെ നാട്ടുവൈദ്യങ്ങൾന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് കാലത്തുള്ളവർ കപ്പയും മരച്ചീനി കപ്പ അങ്ങനെ പുഴുങ്ങി കഴിക്കലാണ് കൂടുതലായിട്ടും അതുകൊണ്ട് നമ്മുടെ ജീവിത ശൈലി മാറുന്നതനുസരിച്ച് നമുക്ക് പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കപ്പ മുൻപുള്ള മുൻപ് മുൻപ് പണ്ട് കാലങ്ങളിൽ കപ്പ വേവിച്ച് അതും എണ്ണയൊന്നും യൂസ് ചെയ്യാണ്ട് വേവിച്ചെടുത്ത് പുഴുങ്ങിയാണ് കഴിച്ച് കൊണ്ടിരുന്നത് ഇപ്പോൾ ആണെങ്കിൽ ചിപ്സ് അതുപോലെ എണ്ണ മസാല അതൊക്കെ യൂസ് ചെയ്ത് കൊണ്ട് പുതിയ പുതിയ തരം ഫുഡ്സ് ഉപയോഗിക്കുന്നതിലൂടെയാണ് നമുക്ക് പുതിയത് പുതിയ പുതിയ രോഗങ്ങൾ രൂപപ്പെടുന്നത് അതുപോലെതന്നെ ഡയബറ്റ് അതിൽ ഒന്നാണ് ഡയബറ്റിസ് ബ്ലഡ് പ്രഷറ് എന്ന എക്സെട്ര അപ്പോൾ അതിൽ ഏറ്റവും മാരകമായ ഒരു അസുഖമാണ് ഡയബറ്റിസ് ഡയബറ്റിസ് വന്ന് വന്നവരിൽ കാണാം നമുക്ക് അവരിക്ക് ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും അത് ഉണങ്ങി കിട്ടാൻ വലിയ പാടാണ് ഉണങ്ങാൻ ഉണങ്ങാൻ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുന്ന അവരാണ് അവരിൽ അതുകൊണ്ട്തന്നെ അവർ വളരെയധികം ആയുധങ്ങൾ പണിക്ക് പോകുന്നവരാണെങ്കിലും മറ്റ് ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ് പറയാനുള്ളത് അ അ അത്തരത്തിലൊരു ഇൻസിഡൻറ്റ് ഇൺ വച്ചിട്ടുണ്ടങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിന് ഫ്രണ്ടിൻ്റെ ഹസ് ഹസ്ബൻറ്റായ ഒരു വ്യക്തിക്ക് കാലിൽ ചെറിയൊരു ആണി തറക്കുകയും അത് വർഷങ്ങളോളം ആ ഒരു വ്രണം ഉണങ്ങാതെ അതുപോലെതന്നെ കിടക്കുകയും അത് പിന്നെ വലുതായി വലുതായി വലുതായി അതൊരു മാറാ രോഗത്തിലേക്ക് മാറി ഒരസുഖം പോലെ മാറാ രോഗം പോലെ പിടിപെടുകയും പിന്നെ അവസാനം വിരൽ മുറിച്ച് മാറ്റി എന്താ ഒരു അവസ്ഥ വരെ വന്നിട്ടുള്ള സാഹചര്യമാണ് ഈ ഡയബറ്റിസ് മൂലമുണ്ടായിരിക്കുന്നത് അതുപോലെതന്നെ ഇത് ചെറിയൊരു രോഗമായി കണക്കാക്കാൻ പറ്റില്ല വലിയൊരു രോഗം തന്നെയാണ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അതുപോലെതന്നെ അവരിക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവൂല ഏത് ഭാഗ കാലിലാണെങ്കിലു അധികമായി കാലിലാണ് വന്ന് കാ കാണാറുള്ളത് കാലിലാണ് എന്നോ നടന്ന് പോകുമ്പോൾ കാലിലാന്നോ എന്തെങ്കിലും തറച്ചിട്ടുണ്ടെങ്കിലും അത് എഫക്ട് ചെയ്യുന്നത് കാലിലോ വിരളിലോ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലാണ് അപ്പോൾ തന്നെ ഒരു എ ആണിയോ വല്ലതും കൊണ്ടു ക തറച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വ്രണം വരുകയും അത് പു ഇത് പുണ്ണായി മാറുകയും അത് പിന്നെ പഴുക്കുകയും വേദനയില്ലാണ്ട് അവരത് വലിയൊരു വ്രണത്തിലേക്ക് മാറുകയും ചെയ്യുന്നതാണ് ഈ ഡയബറ്റിസ് മൂലം പല പല ആൾക്കാരിലും കണ്ട് വരുന്നത് അതുകൂടാതെ നമ്മുടെ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് പൊതുവെ ഉറക്കം ഉറക്ക ക്ഷീണം ഉറക്ക ക്ഷീണമായിരിക്കും അധികവും ജോലി ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും ഇൻസുലിൻ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഭയങ്കര ഉറക്ക ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും